അഹ് എനിക്കെ കാല്കുലേറ്ററ് വേണമായിരുന്നെ പിന്നെ ബ്രൗൺ പേപ്പറ് വേണമായിരുന്നു പൊതിയാൻ അഹ് സൈൻറ്റിഫിക്ക് എത്രയൊക്കെ ആവും ഏതൊക്കെ കമ്പനീടെ ഉണ്ട് അഹ് ബ്രൗൺ പേപ്പറ് പൊതിയാനയിട്ടേ അഹ് ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ഒക്കെ പൊതിയാനായിട്ട് കുറച്ച് വീതി കൂടിയത് കിട്ടുമോ ഉണ്ടോ അഹ് അപ്പം ഇത് രണ്ട് സാധനം ഈ കാല്കുലേറ്ററും ഇതും ഹോം ഡെ അഹ് ലേബല് അഹ് അഹ് ലേബലുവൊണ്ട് അല്ലേ ഒക്കേ അഹ് ഇത് നമ്മൾ ഡെലിവറി അഹ് പേയ്മെൻറ്റിൻറ്റെ കാര്യമെങ്ങനെയാ ഓൺലൈൻ പെയ്മൻറ്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ ഓക്കേ എന്നാൽ എനിക്ക് കാശിയോടെ മതിയെ അഹ് എല്ലാം നോക്കാവുന്ന രീതിയിൽ അഹ് അഹ് ഓക്കേ ഓക്കേ അഹ് അതെ പിന്നെ വീതി കൂടിയ ബ്രൗൺ പേപ്പറൂടെ രണ്ട് രണ്ട് എണ്ണമേ അഹ് പിന്നെ എന്താ പിന്നെ ലേബല് ഓക്കേ ഞാൻ അയച്ചേക്കാമെ പിന്നെ ഇവർ ഹോം ഡെലിവറി ചെയ്യുമ്പത്തേക്കിന് അതിന് എക്സ്ട്രാ പെയ്മൻറ്റ് വല്ലതും ഉണ്ടോ അഹ് ഇത് ആനിക്കാടാണെ അതെ അതെ മല്ലപ്പള്ളി

അഹ് അഹ് ഓക്കേ ഓക്കേ എന്താ സാധനവുമായിട്ട് എത്ര സമയം എടുക്കും ഇങ്ങ് വരാൻ അത് എത്ര അഹ് അതെ ഉടനെ തന്നെ വരുമല്ലേ ഓക്കേ താങ്ക് യൂ ഓക്കേ ഓക്കേ